നെയ്ത്തും തുന്നലും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ് ഞാൻ അത് ആദ്യ പാഠം മുതൽ തന്നെ ബേസിക്ക് ആയിട്ടുള്ള പാഠം മുതൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതു മാത്രമല്ല പുതിയ പുതിയ രീതികൾ അതിൽ പരീക്ഷിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ മനസ്സിന് ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മേഖലയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് കാരണം എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ഇന്ന് വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് അതിൽ പുതുമകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്ക് ശോഭിക്കാൻ സാധിക്കും ഞാനീ തുന്നലിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വസ്ത്രങ്ങളിൽ കൺ മിറർ വർക്കുകൾ കണ്ണാടി ഉപയോഗിച്ചുള്ള വർക്കുകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പകലും രാത്രിയും ഒരുപോലെ തിളങ്ങാൻ സാധിക്കുന്ന കുഞ്ഞു കുഞ് മിറർ വർക്കുകൾ ക്രിയേറ്റീവായിട്ട് വളരെ കലാപരമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെത്തന്നെ തുന്നൽ വളരെ കട്ടി കൂടിയ കോട്ടൻ നൂലുകൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ പുഷ്പങ്ങളും ചിത്രശലഭങ്ങളെ വരച്ച് അതിൽ ഒരു വ്യത്യസ്ത രീതിയിൽ നൂല് കടത്തി വിട്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ അതിനെ ഭംഗിയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന പോലെ നോർമലായിട്ടുള്ള തയ്യൽ രീതികൾക്ക് പുറമേ വസ്ത്രം മനുഷ്യർ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി തന്നെയാണ് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ ആളുകൾ കണ്ടാൽ കൊള്ളാമെന്ന് പറയണം അങ്ങനെ രീതിലുള്ള വസ്ത്രങ്ങളാണ് ഇന്ന് എല്ലാവരും ധരിക്കൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും ആകർഷിക്കുന്ന ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന തുന്നൽ രീതികൾ വസ്ത്രങ്ങളിൽ ചേർക്കാനാണ് ഞൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വെറൈറ്റിയായി വ്യത്യസ്തമായിട്ടുള്ള കലാപരവുമായിട്ടുള്ള തുന്നലിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെത്തന്നെ തുണിത്തരങ്ങൾ വളരെ കാരണം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭ്യമായിട്ടുള്ള വസ്ത്രങ്ങളിൽ കൂടുതലും ക്വാളിറ്റി കുറഞ്ഞത് നല്ല സ്റ്റാൻഡേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള വസ്ത്രങ്ങൾ വളരെ വളരെ ചുരുക്കമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം അതിൽ നമുക്ക് ലഭിക്കുന്ന വസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ വസ്ത്ര വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ നെയ്ത്ത് സാധനങ്ങളിലോ മുക്കുന്ന കളറുകൾ പോലും പെട്ടെന്ന് ഫെയ്ഡായി പോട് പെട്ടെന്ന് മങ്ങിപ്പോവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ച് പോകുന്ന രീതിയിലുള്ളതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കളർ ഇളകാത്ത പോലുള്ള നിറങ്ങൾ അതിന് ഉപയോഗിക്കാനും അതുപോലെത്തന്നെ അതിനെ ഒരിക്കലും ഒരുപാട് വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള വസ്ത്രങ്ങൾക്കാണ് ഞാൻ പ്രിഫറൻസ് അപ്പം അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നെയ്ത്തിൽ നെയ്ത്തിലൂടെ ഉൽപാദിപ്പിച്ചെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വളരെ ക്വാളിറ്റി കൂടിയ കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം ഭക്ഷണമുണ്ടാക്കാനും ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണമുണ്ടാക്കാനും ശരീരത്തിന് കേടില്ലാത്ത ഭക്ഷണം കഴിക്കാനും ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെത് അതുപോലെത്തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനും യാതൊരു പോരായ്മകളുമില്ല അത് നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ അതിൽ ചേർക്കുന്ന നിറങ്ങൾ അതിലെ രീതികൾ അതിലെ ഡിസൈനുകൾ എല്ലാം വളരെ നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെത്തന്നെ പച്ചക്കറി പ്രിൻറ്റിങ് വെജിറ്റബിൾ പ്രിൻറിങ് പോലെയുള്ള നൂതനങ്ങളായ നല്ല നല്ല ആശയങ്ങൾ അതിൽ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും നമ്മൾ കാണുന്നത് എപ്പോഴും പൂക്കളുടെയൊക്കെ പടം അല്ലെങ്കിൽ അല്ലെങ്കിൽ വെറും സാധാ ഡിസൈനുകളാണെങ്കിൽ നമ്മളിന്ന് കേരളത്തിൽ ജീവിക്കുന്നവരാണ് കർഷകരുള്ള നാടാണ് അപ്പോൾ കർഷകർ ഉൽപാദിപ്പിക്കുന്ന വെജിറ്റബിളുകൾ നിറങ്ങളിൽ ചായങ്ങളിൽ മുക്കി നെയ്യുന്ന തുണികളിലും അല്ലെങ്കിൽ തുന്നുന്ന വസ്ത്രങ്ങളിലും ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഫാബ്രിക് പെയിൻറുകൾ ഉപയോഗിച്ചുള്ള ഡിസൈനുകളും പൂക്കളും ഒക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ രീതിയിൽ നല്ല രീതിയിലുള്ള നിറങ്ങൾ ക്വാളിറ്റിയുള്ള നിറങ്ങൾ ഗുണമേന്മയുള്ള നിറങ്ങളും ഗുണമേന്മയുള്ള നൂലുകളും ഉപയോഗിച്ച് നല്ല രീതിയിൽ നെയ്യുന്നതിനും ആ നെയ്തെടുക്കുന്ന തുണികൾ നല്ല രീതിയിൽ തുന്നുന്നതിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകൾ അതിൽ പതിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനും പരീക്ഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടി എൻ്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളും ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രയത്നങ്ങളും ഞാൻ ഉപയോഗിക്കുന്നതാണ്